എൻ്റെ സഹോദരിയായാലും അല്ലെങ്കിൽ പെൺസുഹൃത്തക്കളായാലും ആരായാലും ഇപ്പം അവരുടെ അവർക്ക് ആഗ്രഹമുള്ള അത്ര ഏറ്റവും ടോപ്പ് ലെവൽ വിദ്യാഭ്യാസം കിട്ടണമെന്നാണ് എൻ്റെ ആഗ്രഹം അതിൽ റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ല അതിപ്പം ഇപ്പം അതൊക്കെ പഴയ തലമുറയിലെ ആൾക്കാരാണ് ഈ പെൺകുട്ടികൾ ഇത്ര ലെവല് വരെ പഠിച്ചാൽ മതി അതിൻ്റെ അപ്പുറം പഠിത്തത്തിന് ആവശ്യം അങ്ങനെത്തെ ഇതൊക്കെ കേൾക്കുന്നത് പണ്ടത്തെ ഒരു ഇതായിരുന്നു പക്ഷേ ഇപ്പം ആരും തന്നെ അങ്ങനെ ചെയ്യുന്നില്ല എല്ലാവരും അവരുടെ മക്കളെ ആയാലും അത് ആണെന്നോ പെണ്ണെന്നോ വേർതിരിവില്ലാതെ ഏറ്റവും അവർക്ക് ആഗ്രഹം ഉള്ളത്രയും പഠിപ്പിക്കുന്നുണ്ട് അപ്പം അങ്ങനെയാണ് അതില്ലേ ഇപ്പം അങ്ങനെയാണ് ഞാൻ കേൾക്കാറ് അല്ലാതെ ഇപ്പോഴും പഴയ പോലെത്തന്നെ പെൺകുട്ടികൾ ഇത്ര ലെവല് പഠിച്ചാൽ മതി അവരുടെ ആഗ്രഹങ്ങളൊന്നും സാധിച്ച് കൊടുക്കപ്പെടുന്നില്ല ഇങ്ങനെത്തെ ഇതൊന്നും ഇപ്പം കേൾക്കാറില്ല സോ അക്കാര്യത്തിൽ ആ കാര്യത്തിൽ ഒരു ബുദ്ധിമുട്ടും ഇപ്പോൾ ഞാൻ കേൾക്കാറില്ല എന്തെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അതിന് ഇപ്പം നിയമം സപ്പോർട്ട് ഉണ്ട് അപ്പം പ്രശ്നങ്ങളൊന്നും ഇല്ല അപ്പം എൻ്റെ സഹോദരിയുടെ കാര്യം പറയുകയാണെങ്കിൽ അവൾക്ക് നഴ്സിംഗ്ന് പോവണമെന്നാണ് ആഗ്രഹം വീട്ടുകാരതിനനുസരിച്ച് പഠിപ്പിക്കുന്നു എനിക്ക് എൻ്റെ ഈ കോഴ്സ് പഠിക്കണമെന്നായിരുന്നു ആഗ്രഹം അതിനനുസരിച്ച് വീട്ടുകാർ പഠിപ്പിക്കുന്നു സോ അതിപ്പം അവർ ആ ഒരു ആൾക്കാരുടെ ആ ഒരു മൈൻഡ്സെറ്റ് അല്ലെങ്കിൽ അവരുടെ മെൻറ്റാലിറ്റിയിൽ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട് പണ്ടത്തെ തലമുറ പണ്ടത്തെ തലമുറ നമുക്ക് പഠിക്കാനും ഉണ്ടായിരുന്നു കേട്ടിട്ടും ഉണ്ട് ഇങ്ങനെ പെൺകുട്ടികളെ ആ എപ്പഴും ആൺകുട്ടികളെ മാത്രമായിരുന്നു പഠിപ്പിച്ചിരുന്നതും അവർക്ക് മാത്രമായിരുന്നു എല്ലാത്തിനും അനുവാദം ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ അങ്ങനെയില്ല ഇപ്പോൾ എല്ലാർക്കും തന്നെ ഈക്വൽ ആയിട്ടുള്ള ഒരിതുണ്ട് ആര് ആരായാലും ഒരുപാട് ഫോഴ്സ് ചെയ്ത് അവരെ അടിച്ചമർത്തി പഠിപ്പിക്കാതെ അവർക്ക് ആവശ്യമുള്ള അതിപ്പം ആണെന്നും പെണ്ണെന്നും വ്യത്യാസമില്ലാതെ അവർക്ക് ആവശ്യമുള്ളത്ര പഠിപ്പിക്കുക ആവശ്യമുള്ളത്ര അവരെ പഠിക്കുക അതായിരുന്നു അതാണിപ്പം ഏറ്റവും അല്ലേ അതാണല്ലോ ഏറ്റവും വലിയ കാര്യം അപ്പം ഇപ്പം സുഹൃത്തായാലും ഇപ്പം എൻ്റെ എൻ്റെ കൂടെ എൻ്റെ സഹപാഠികൾ ഗേൾസ് ആണെങ്കിലും അവരാണെങ്കിലും ലൈക്ക് അവർക്കിഷ്ടമുള്ള ഒരു കോഴ്സ് ആണ് അവരെടുത്തത് അവരെ വീട്ടിൽനിന്ന് ആരും ഫോഴ്സ് ചെയ്തിട്ടും ഇല്ല അവർ അവരുടെ ഇഷ്ടത്തിന് പഠിക്കുന്നു അതിന് വീട്ടുകാരായാലും തടയും ഇടുന്നില്ല അവർ സമ്മതിക്കുന്നത് ഇപ്പം ഇപ്പം എനിക്ക് തോന്നുന്നു ഈ ആ സിസ്റ്റം കംപ്ലീറ്റ്ലി തന്നെ മാറിയിട്ടുണ്ട് ഇപ്പം ഒരിടത്തും അത് കാണാൻ കാണാനില്ല എന്നാണ് എൻ്റെ അറിവ് എങ്കിലും എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതിനൊരു അതിനവരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ട് നമ്മളെ ഇപ്പോഴത്തെ നിയമത്തിൽ അപ്പം അത് അത്ര ടെൻഷൻ പണ്ടത്തെ അത്രയും പണ്ടത്തെ അത്രയും ഭയാനകമാണ് ഇപ്പോഴെത്തെ ഇത് എന്ന് എനിക്ക് തോന്നുന്നില്ല എങ്കിലും ലൈക്ക് അങ്ങനെ ഇഷ്യൂ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യപ്പെടും ഇപ്പം എൻ്റെ വീട്ടിലായാലും എൻ്റെ പേരെൻസ് ഒരിക്കലും എതിര് നിന്നിട്ടില്ല ഇത്ര പഠിക്കാവുള്ളൂ അല്ലെങ്കിൽ എൻ്റെ അനിയത്തി ആയാലും അങ്ങനെ പറഞ്ഞിട്ടില്ല അവൾക്കാഗ്രഹം ഉള്ളത്രയും പഠിക്കട്ടെ അങ്ങനെയാണ് വീട്ടുകാരുടെ മൈൻഡ്സെറ്റ് അപ്പം അതാണ് ഞാൻ പറഞ്ഞ് വന്നത് മൈൻഡ്സെറ്റില് ഒരു ബിഗ് ഡിഫറൻസ് ഉണ്ട് പണ്ടത്തെ ആൾക്കാരുടെ ഇപ്പോഴത്തെ ആൾക്കാരുടെ സോ അങ്ങനെ ആ മൈൻഡ്സെറ്റിൻ്റെ ആ ഒരു ലൈക്ക് ആ ഒരു ചേഞ്ച് ഇപ്പം അടുത്ത തലമുറ ആണെങ്കിലും അതായത് ഇപ്പം ഞങ്ങളുടെ അടുത്ത തലമുറയാണെങ്കിലും അവർക്ക് ആഗഹം അവർക്ക് ആഗ്രഹമുള്ള അത്ര പഠിക്കാനുള്ളൊരു സാഹചര്യം നമ്മളുണ്ടാക്കും അപ്പം അത് തന്നെയാണ് ഇപ്പോഴത്തെ തലമുറയിൽ നടക്കുന്നത് ഈ ആൺപെൺ ഇപ്പം ആൺപെൺ വ്യത്യാസം ഇല്ല ഇപ്പം ആൺപെൺ വ്യത്യാസമില്ല പണ്ടൊക്കെ ഈ വിദ്യാഭ്യാസം അല്ലാതെ പറയുകയാണെങ്കിൽ പണ്ട് ഈ അടുക്കളയിൽ ഒതുങ്ങി തീരുക അങ്ങനെ നമ്മൾ സിനിമയിലും കണ്ടിട്ടുണ്ട് അല്ലാതെ പഠിച്ചിട്ടും ഉണ്ട് അങ്ങനെത്തെ ഒരു സിസ്റ്റമായിരുന്നു പക്ഷേ ഇപ്പം അങ്ങനെയല്ല ഇപ്പം അവർ ജോലിക്ക് പോവുന്നുണ്ട് അവരെ സ്വയം പര്യാപ്തരാക്കുക അങ്ങനെ ആക്കുക ആക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഈ ഒരു ജനറേഷനും ആണ് ഇനി വരാൻ പോകുന്ന ജനറേഷനും അങ്ങനെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിപ്പം പ്രശ്നമില്ല അങ്ങനെയുള്ളതാണ് കേൾക്കുന്നത് അതിൽ മാറ്റമൊന്നും ഇല്ല എങ്കിലും എന്തെങ്കിലും അതിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇപ്പം പോലീസ് ആയാലും എല്ലാം അവർക്ക് അവരുടേതായ തന്നെ സംഘടനകളുണ്ട് വുമൺ എംപവർമെൻറിൻ്റെ സോ അതൊരു വലിയ ഇഷ്യു ആണെന്ന് തോന്നുന്നില്ല ഇപ്പം ഗവൺമെൻറിൻ്റെ ഭാഗത്തുനിന്നായാലും പല ഇനിഷിയേറ്റീവ്സ് ഉണ്ട് വുമൺ എംപവർമെൻറ് അങ്ങനെ അവരെ ലൈക്ക് ഇപ്പം എല്ലാവരും തന്നെ ഇപ്പം ആണും പെണ്ണും ഈക്വൽ ആയിട്ട് തന്നെ തന്നെയാണ് എല്ലാ കാര്യങ്ങൾക്കും മുമ്പോട്ട് പോകുന്നത് അതിൽ ചേഞ്ച് ഇപ്പം ഇല്ല ഇപ്പം പണ്ടത്തെ അത്രയും ഇതില്ല ഇപ്പം ഈക്വൽ ആയിട്ടാണ് പോകുന്നത്